നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുവാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മൾ എല്ലാം ഒരു ഒരു ഒരു കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് വിടാൻ പോലും ഇപ്പം പേടിയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നാ ഒന്ന നന്മയാണോ തിന്മയാണോ എന്നുള്ളതും കൊച്ചുങ്ങൾ അത് അവർ ആ വഴി പോയി ഈ വഴിപോയി അത് ചെയ്തു ഇത് ചെയ്തു കുഞ്ഞുങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഇതിൽ ഒരു കുറ്റകൃത്യങ്ങൾ കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെയുള്ള പോലെ സാധനങ്ങൾ കാരണം കുഞ്ഞുങ്ങളെയെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് കാണാനും അതുങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ പോലും ആ വഴിയെ സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ അതുങ്ങൾ ആ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു മനുഷ്യരുടെ കാമന കള്ളം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഏറെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പിന്നെ അതിനെ നമ്മൾ കുറക്കാനായിട്ട് എല്ലാവരും ഒരു ഒരു മുൻ കരുതൽ എന്ന നിലയിൽ ഒരു ഒരു രാജ്യത്തെ ഒരു ഒരു സ്ഥലത്തെ ഒരു ചെറിയ സമൂഹത്തെ നമ്മുടെ ആ അടുത്തുള്ള ഒരു സമൂഹത്തെ നമുക്ക് നല്ലതായിട്ട് വാർത്തെടുക്കാനായിട്ട് അതുങ്ങളെ ബോധവൽക്കരിക്കുകയും ആ കാര്യങ്ങൾ പോയാൽ അവരുടെ ഭാവിയാണ് ജീവിതത്തെ അവരുടെ ജീവിതം തന്നെ നശിച്ചുപോകുമെന്ന് നമുക്ക് മനസിലാക്കി കൊടുക്കാനും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാനും നമുക്ക് സാധിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് എത്രയാണ് നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇത് ബോധവൽക്കരിച്ചു പറഞ്ഞു കൊടുത്തു മനസിലാക്കി മീഡിയ വഴി മനസിലാക്കി ചെയ്താലും കുറേയേറെ ആൾക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറേപ്പേർ ഈ സമൂഹത്തിൽ ഇതിങ്ങനെ ചെയ്യുക അവർ അത് ചെയ്യാതെ വഴിയേ പോകുന്ന ഒരു കുഞ്ഞിനെ വിളിച്ചു നിർത്തി അവനോട് ആ അതിനെ കുറിച്ച് സംസാരിച്ച അവൻ അത് കേട്ടുപോലും കാണത്തില്ല അപ്പോൾ ഇച്ചിരി മുമ്പ് നിന്നോട് സംസാരിച്ചത് എന്നാ ഇച്ചിരി അവൻ പറയും കള്ളവാണ് പറയുന്നത് അപ്പോൾ അവൻ പിന്നെ ആ കുറിച്ച് ഇതിനെ കുറിച്ച് നീ പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കും ഈ കുഞ്ഞ് അത് പറയാതെ ഇരുന്നാൽ അതിനെ പിന്നെ ആ കൊച്ചിനെ ആ ഒരു തെറ്റിലേക്ക് അവർത്തിക്കാനും അവർക്ക് അതിനെ അത് കൊണ്ടുപോകുവാനും പിന്നെ അതിൻ്റെ ഭാവി ജീവിതം തന്നെ ഇതായി പോകാനും അത് വളരെയേറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ പോവാനുമുണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പം അതിനെ സംരക്ഷിക്കേണ്ട ചുമതല എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒരു വ്യക്തി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തെ പഴിചാരാൻ ഒരാൾ ഒന്ന് പെട്ട് പോയി ഇനി ആ സമൂഹം ഒരു കുടുംബത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ മുഴുവൻ അങ്ങനെ ഇതായിട്ട് കണ്ട് അവരെ നശിപ്പിക്കാനും നമുക്ക് ആർക്കും അവകാശമില്ല ദൈവത്തിൻ്റെ ഹിതമാണ് ഓരോരുത്തരുടെ ഓരോ ഇഷ്ട്ടം നടക്കുന്നത് നമുക്ക് അവരെ ഇതാക്കി എടുക്കാൻ പറ്റും